ഹലോ സർ ഇരിക്കു സർ ഓക്കെ സർ നല്ല കറക്റ്റ് സ്ഥലത്തേയ്ക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഏറ്റവും ട്രസ്റ്റഡ് കമ്പനിയാണ് ഞങ്ങളിപ്പോൾ ഇന്ത്യയിലെ എല്ലായിടത്തും ബൈക്ക് റെൻ്റ്സ് അതുപോലെ കാർ റെൻ്റിങ്ങ് അങ്ങനെ കുറേ വെഹിക്കിൾസ് ഞങ്ങൾ റെൻ്റിന് കൊടുക്കുന്നുണ്ട് സർ സാറിന് ഏത് വണ്ടിയാണ് വേണ്ടത് ബൈക്ക് ആണല്ലെ ടൂ വീലറിൽ ഇപ്പോൾ പൾസർ അവൈലബിൾ ആണ് സർ മെയിനായിട്ടുള്ള സ്കൂട്ടി ടൈപ്പ്സ് ഉണ്ട് ബൈക്ക്സ് ടൈപ്പ്സ് ഉണ്ട് ബൈക്കാണ് സാറിന് വേണ്ടത് വിത്ത് ഗിയർ അല്ലേ സർ ഓക്കെ വിത്ത് ഗിയറിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്നത് എഫ് സെഡ് ടൈപ്പ് ആണ് പിന്നെ പൾസർ ഉണ്ട് പിന്നേ രജിസ്ട്രഷേൻ ചെയ്യാനാണോ സർ പേര് സാറിൻ്റെ മറ്റെ ഒരു പ്രൂഫ് വേണം ആധാർ പ്രൂഫ് അല്ലെങ്കിൽ പാസ്സ്പോർട്ട് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസും വേണം സാർ ഒക്കെ അത് നിർബന്ധമാണ് റേറ്റ് സർ പെർ ഹവർ ആണ് വരുന്നത് റേറ്റ് അപ്പോൾ സാറിന് എങ്ങനെയാണ് വേണ്ടത് ഒരു ഡേ ആണോ ആവശ്യം ഒക്കെ സർ ഇത് പെർ ഹവർ ഞങ്ങൾക്ക് റേറ്റ് വരുന്നത് തൗസൻ്റ് റുപ്പീസാണ് സർ പെർ ഹവർ തൗസൻ്റ് അതേ കൂടുതൽ സാറേ ഈ റേറ്റിനാണ് കൊടുക്കുന്നത് കാരണം ഇവിടുള്ളതൊക്കെ കുറച്ച് നല്ല ഹൈ പെർഫോമൻസ് വെഹിക്കിൾസാണ് കാരണം റേറ്റ് കുറയ്ക്കാം എന്നുള്ളത് നമുക്ക് കുറയ്ക്കാം സർ സംസാരിച്ച് നമുക്കതിൽ കുറയ്ക്കാൻ പറ്റും സർ അതിപ്പോൾ ഒരു ഡേയ്ക്ക് അതെ ഒരു ഡേയ്ക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യും സർ ഫ്യുവലിൻ്റെ കാര്യം ഇവിടെ നിന്ന് തരുമ്പോൾ ഞങ്ങൾ ഒരു രണ്ട് ലിറ്റർ അടിക്കും സാർ ബാക്കി നമ്മുടെ കസ്റ്റമർ തന്നെ അടിക്കണം അങ്ങനെയാണ് ഇല്ല കോഷൻ ഡെപ്പോസിറ്റ് അങ്ങനത്തെ ആ ടൈപ്പ് ഇല്ല സർ ഫസ്റ്റ് ഫണ്ട് ഫസ്റ്റു തന്നെ ഫസ്റ്റ് ഫുൾ പേയ്മെൻ്റ് അടച്ച് കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കുന്നത് അതെയതെ റിട്ടേൺ ചെയ്താൽ മതി അത്രയേ ഉളളൂ ബുക്ക് കറക്റ്റ് ആണ് സർ എല്ലാം ഞങ്ങൾ വണ്ടി തരുമ്പോൾ തന്നെ കൂടെ പേപ്പഴ്സും കാര്യങ്ങളിലെല്ലാം റെഡി ആക്കിയിട്ടാണ് സർ തരിക സാർ സാറിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് സാർ തൃശ്ശൂർ ആണ് ഓക്കെ ഇവിടേയ്ക്ക് ടൂറിസ്റ്റിനായി വന്നതാണല്ലേ ഒക്കെ അതെ സർ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര സൗകര്യം ആയിരിക്കും അതെ അതെ സർ അതെ സർ ഓക്കെ സർ സാറിന് എന്നാൽ നമുക്ക് ഈ വർഷം കമ്പനി തുടങ്ങിയിട്ടിപ്പോൾ ഒരു നാല്പത് വർഷത്തോളമായി സർ എൻ്റെ അതെ അച്ഛനായിട്ട് തുടങ്ങിയ കമ്പനിയാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടുപ്പോകുന്നു അതെ കാറുകളുണ്ട് ബൈക്ക് ഉണ്ട് സ്കൂട്ടീസ് ഉണ്ട് ഇലക്ട്രിക്ക് കാർസ് ആണെങ്കിൽ അതുണ്ട് ഇപ്പോൾ ഇലക്ട്രിക്ക് വെഹിക്കിൾസിൻ്റെ ഡിമാൻ്റ് കൂടിയ സ്ഥലം അല്ലേ സമയം അല്ലേ ഇപ്പോൾ അതും കൊടുക്കുന്നുണ്ട് സർ ഇലക്ട്രിക്ക് വെഹിക്കിൾസ് എടുക്കുമ്പോൾ ഫുൾ ചാർജിൽ ഞങ്ങൾ തരും സർ ഇലക്ട്രിക്ക് വെഹിക്കിൾസ് ഒന്നുകൂടിയും മറ്റെ റെൻ്റ് കുറവാണ് അതിൻ്റെ എമൗണ്ട് കുറച്ച് കമ്മിയാണ് അതെ കമ്മിയാണ് അതിൽ ടൂ വീലർ ഏതർ ഇല്ലേ സർ ഏതർ ആ സ്കൂട്ടിയാണ് മെയിനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് ആ സ്കൂട്ടിക്ക് ഇപ്പോൾ അതെ സർ അത് തൗസൻ്റ് തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് ആ ലെവലൊക്കെയേ വരുന്നുളളൂ ഹവർ അതെ ഓക്കെ യെസ് ഒക്കെ സർ താങ്കളുടെ ഇഷ്ടംപോലെ ഏതാണെങ്കിലും അതെ ഓക്കേ സാർ പേയ്മെൻ്റ് ഇപ്പോൾത്തന്നെ ചെയ്യാം ഞാൻ എൻ്റെ നമ്പർ തരാം അതിലേക്ക് ചെയ്യാം ഓക്കേ സാർ നമുക്ക് എന്നാൽ വണ്ടി കാണാനായിട്ട് നീങ്ങാം സർ